ചേട്ടാ ചേട്ടന് വീട്ടിലെത്തിച്ചതിന് നന്ദി കേട്ടൊ ചേട്ടന്റെ വണ്ടിയില് യാത്രയൊക്കെ സുഖമായിരുന്നു ചേട്ടാ എത്രയായി ചേട്ടാ എങ്ങനെയാണ് ചേട്ടന് എൻ്റെ കേഷായിട്ടില്ലല്ലോ ചേട്ടന് ഗൂഗ്ൾ പേയോ ഫോൺപേയോ എന്തേലുമുണ്ടൊ ചേട്ടാ എനിക്ക് ഞാന് ഇന്നലെയാണ് ഫോണൊരാള് ഗൂഗിള് പേ ചെയ്തിട്ട് പോയില്ലായിരുന്നു നോക്ക അല്ലെങ്കില്പ്പിന്നെ ഹസ്ബെൻ്റ് വെര്ന്നേടമ്പരെ നില്ക്കണം പൈസ മേടിച്ച് തരാനായിട്ടേ ചേട്ടന് ഫോൺ ഏതാ ഗൂഗ്ൾ പേയോ ഉള്ളയേടെയ് ഏതാ അക്കൗണ്ടെവിടെയാ ചേട്ടൻ്റെ അതനുസരിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു ഞാന് ഗൂഗ്ൾ പേ ചേട്ടൻ്റെ നമ്പര് പറയേങ്കിലെ ഞാനാ നമ്പറില് ചെയ്യും ചെയ്ത് നടന്ന് ഗൂഗിള് പേ ചെയ്തു തരാമായിരുന്നു ചേട്ടന് നമ്പര് പറഞ്ഞാല് മതി ഞാന് നോക്കട്ടെ പോവോന്ന് നോക്കട്ടെ വേ കേഷേ കഴിഞ്ഞ ദിവസം ഫോണില് ഒരു ഗൂഗിള് പേ ചെയ്തിട്ട് പോയില്ലായിരുന്നു ഇച്ചിരി മുന്നേ അന്നേരം നോക്കാം നമുക്ക് ഇവക്ക് പൈസ ഇടുകയാണെങ്കില് ഉണ്ടെങ്കില് ചേട്ടന് ഞാന് ഗൂഗ്ൾ പേ തന്നെയ്തേരാം അല്ലെ പിന്നേ ഹസ്ബൻ്റ് വെര്ന്നടം വരെ ഒന്ന് നില്ക്കണം ചേട്ടനൊന്ന് വെയ്റ്റെയ്യണം കേട്ടൊ ആ ഞാന് നോക്കട്ടെ ചേട്ടൻ്റെ നമ്പര് പറയാമോ ചേട്ടാ ചേട്ടൻ്റെ നമ്പര് എങ്കില് ഞാന് ചെയ്തോളാമായിരുന്നു ഗൂഗ്ള് പേ ചെയ്യാമായിരുന്നേ എല്ലെ ഫോൺപേയോ എന്താന്ന് വച്ചാല് പറഞ്ഞാല് മതി ഞാനനുസരിച്ച് ചെയ്ത് തരാം കേട്ടൊ അ ചേട്ടാ പൈസ ഞാൻ നോക്കട്ടേ ഗൂഗ്ൾ പേ പോകുന്നുണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കില് അതനുസരിച്ച് ചെയ്തുതരാം ചേട്ടാ പൈസ കേറിയോ ചേട്ടാ നോക്കിക്കെ ഞാന് ഗൂഗ്ൾ പേ ചെയ്തതായിരുന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ടെനിക്കേ ചേട്ടനൊന്ന് നോക്കിക്കെ ചേട്ടൻ്റെ അതില് പൈസ കയറിയോന്നൊന്ന് നോക്കിക്കെ ആ പൈസ കയറി അല്ലെ ആ എന്നാ ശരി ചേട്ടാ ഓക്കെ ചേട്ടൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് വളരെ നന്ദി കേട്ടൊ ചേട്ടൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നു കുഴപ്പമൊന്നുമില്ല വീട്ടിലെത്തിച്ചതിന് ചേട്ടന് വളരെ നന്ദി